ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ ജില്ലയിൽ ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് അതായത് വിനോദസഞ്ചാര അതായത് വിനോദ പ്രവർത്തനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് പറയാം നമ്മുടെ ബീച്ചുകൾ ബീച്ചുകളിലാണ് കൂടുതൽ ആൾക്കാരും അതായത് സായാഹ്നങ്ങൾ അതായത് ഒഴിവുള്ള സായാഹ്നങ്ങൾ കാര്യങ്ങളൊക്കെ രസകരമാക്കാൻ പോകുന്നത് കൂടുതലായിട്ടും ബീച്ചുകളിലും കാര്യങ്ങളിലും ഒക്കെയാണ് അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീച്ചുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും പറയാം നല്ല അതായത് സുഖം അതായത് നമുക്കിപ്പം നമുക്ക് പറയാം നമ്മുടെ പ്രദേശത്ത് ഭയങ്കര ചൂട് കാര്യങ്ങളൊക്കെയാണ് അപ്പം അതുകൊണ്ടുതന്നെ നമുക്ക് സുഖമായിട്ട് പിന്നെ സുഖമായിട്ട് അതായത് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് റിലാക്സേഷന് വേണ്ടി നമുക്ക് ബീച്ചിൽ കൂടുതലായിട്ടും നമ്മുടെ ആൾക്കാരൊക്കെ കൂടുതലായിട്ടും അങ്ങനെ പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം പുറത്ത് ഇപ്പം അതായത് വല്ല ടൂറും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും നമ്മുടെ ജില്ലയിൽ പോകില്ല പുറമേയുള്ള ജില്ലയിലൊക്കെയാണ് പോകാറ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായിക പ്രവർത്തനങ്ങൾ നമുക്ക് ഒരുപാടുണ്ട് നമ്മുടെ ജില്ലയിൽ തന്നെ വിനോദ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ പാരമ്പര്യം ഇപ്പോൾ കോഴിക്കോട് ബീച്ച് ആർട്ട് ഗാലറി മിഷ്കാൽ മസ്ജിദ് അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതിലേക്കൊക്കെയാണ് കൂടുതലായിട്ട് ആൾക്കാർ പോകുന്നത്